ഹലോ ഇത് ആലൂക്കാസ് ജ്വല്ലറിയാണോ ആ ഞാന് ഞാന് ഒരു കാര്യം അറിയാന് വേണ്ടി വിളിച്ചതായിരുന്നേ എനിക്കൊരു കൊലുസ്സ് മാറി മേടിക്കാനാരുന്നേ അപ്പോള് അവിടെ ഞാന് ഏതൊക്കെ ഡിസൈന് കൊലുസ്സാണ് ഉള്ളത്

ആ അത് എത്ര പവന് വരെയൊക്കെ വരും ഈ ബീഡ്സ് വച്ചതൊക്കെ ആ എന്റെ കയ്യിലുള്ളതൊരു രണ്ടു പവന് അടുത്തു വരുന്നതാണേ ആ ഒരു ആ ഒരു വെയ്റ്റ് വരുന്നതുതന്നെ എടുക്കുവാനായിരുന്നേ ആ ആ അതിന്റെ പണിക്കൂലി എത്രയാവും ആ അത് ഇപ്പോള് ബീഡ്സിന് കൂടുതലുണ്ടോ ബീഡ്സിനും അല്ലെങ്കില് ബീഡ്സിന് എത്ര പണിക്കൂലിയുള്ളത് ഈ സാധാ റൗണ്ട് ബീഡ്സാണെങ്കിലതിനു പണിക്കൂലി എത്ര വരെയാവും ആം ഒരു ഈ ചെറുതായിട്ട് വൈറ്റ് ഗോള്ഡ് വരുന്നത് സ്വര്ണ്ണത്തിന്റെ തന്നെ ആ ആ ആ അത് ഞാനിപ്പോള് പഴയതു വില്ക്കുകയാണെങ്കില് എത്ര രൂപ വരെ എനിക്കു പവനെ വച്ചുനോക്കുമ്പോള് എനിക്കിത്ര രൂപ കുറയ്ക്കുമെന്നു വല്ലതുമുണ്ടോ അതോ പവന്റെ പൈസ തന്നെ കിട്ടുമോ അങ്ങനെ കുറയ്ക്കുകയൊന്നും ഇല്ല അല്ലേ ആ ഓക്കേ ഉം പിന്നെ അല്ല അടുത്ത ദിവസം ഈ ബുധനാഴ്ച വന്നെടുക്കാന് വേണ്ടിയായിരുന്നേ അന്നു തുറക്കില്ലേ ആ മോണിങ്ങിലെപ്പോഴാണു തുറക്കുന്നത് ആ നമുക്ക് ഇങ്ങനെ ഇതു വിറ്റിട്ടുണ്ടെങ്കില് അല്ല ഇപ്പോള് വല്ല ഓഫറും ഉണ്ടോ എങ്ങനെ പണിക്കൂലിയാണോ പണിക്കൂലിയിലാണോ വ്യത്യാസം വരുന്നത് അത് എത്ര പേര്സെന്റേജ് വരെ ഡിസ്ക്കൗണ്ടുണ്ട് ആ ആ ഇത് നയന് വണ് സിക്സാണോ സ്വര്ണമൊക്കെ ഉം ഇപ്പോള് ഞാന് ഇതു തരുകയാണെങ്കില് ഒരു രണ്ടു പവന്റെ തരികയാണെങ്കില് രണ്ടു പവന്റേതു തന്നെ ഞാൻ തിരിച്ചെടുക്കാനാണെങ്കില് എനിക്കെത്ര രൂപ വരെ കൂടതല് തരേണ്ടിവരും ആ ആ ആ ആ ഉം ഓക്കെ എന്നാല് ഞാന് അടുത്ത ദിവസം വന്നേക്കാമേ ആ ശരി താങ്ക്യൂ